എനിക്ക് കൂടുതൽ എഴുതാൻ ആ താല്പര്യമുള്ളത് അതായത് മരങ്ങളെക്കുറിച്ചും മരം വെട്ടുന്നതിനെക്കുറിച്ചും അങ്ങനെയുള്ളതാണ് കവിതയാണെങ്കിലും കഥയാണെങ്കിലും എഴുതാൻ അങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടം അതൊക്കെയാണ് എനിക്ക് ആഗ്രഹം അങ്ങനത്തെ അതായത് സമൂഹത്തിനോട് അതിനെക്കുറിച്ച് പറയാൻ അതായത് മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കരുത് കാരണം അതുംകൂടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഓക്സിജൻ ഒക്കെ മര്യാദയ്ക്കു കിട്ടുന്നതും നമ്മൾ നല്ല വായു ശ്വസിക്കാനൊക്കെ നമുക്ക് മരങ്ങളും എല്ലാം വേണം അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറേ എഴുതിയിട്ടുണ്ട് കവിതകൾ അങ്ങനത്തെ ആണ് കഥയാണെങ്കിലും എപ്പോഴായാലും സമൂഹത്തിനോട് സംസാരിക്കാനാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ആണ് പറയാനുള്ളത് മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കാണ്ടിരിക്കുക നമ്മളെ ആവാസ വ്യവസ്ഥയെ തകർക്കാണ്ടിരിക്കുക